ഞാനുണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടപ്പെട്ട ആള്കൾക്ക് ഞാനെൻ്റെ പാചക വിധികൾ കൈമാറുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ഒന്നെങ്കിൽ ഞങ്ങൾ ഒന്നെങ്കിൽ ഞങ്ങൾ ഫോൺ വിളിച്ച് എൻ്റെ പാചകവിധി അവർക്ക് കൈമാറുകയും അല്ലെങ്കിൽ ഞാനെൻ്റെ പാചകവിഡിയോ യൂറ്റൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അതുവഴിയുമാണ് ഞാനെൻ്റെ പാചകവിധികൾ കൈമാറുന്നത് അല്ലെങ്കിൽ ഫോൺ വിളിച്ച് അവര് പാചക ഈ ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റെപ് ബൈ സ്റ്റെപ് ആയിട്ടാണ് അവർക്ക് പറഞ്ഞുകൊടുക്കുന്നത് കാരണം അവർക്കതിൻ്റെ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്നവർക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പാചകം ചെയ്യുന്നതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുകൊടുക്കും ഇത്ര ഗ്ലാസ് പൊടിക്ക് ഇത്ര ഗ്ലാസ് വെള്ളം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാനവർക്ക് പറഞ്ഞുകൊടുക്കാറുണ്ട് എന്നാലേ അവർക്കതിൻ്റെ പാചകത്തിൻ്റെ ഒര് അളവ് അല്ലെങ്കിലതെങ്ങനെയാണ് ചെയ്യണ്ടതെന്ന് അവർക്ക് മനസിലാവുകയുള്ളു